ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കസേരയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ആ കസേരയുടെ എനിക്ക് കസേരയിലൂടെ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായിരുന്നത് കാരണം അത് ആ ഓ അവർ കാണിച്ച കസേരയൊന്നുമല്ല എനിക്ക് അവർ ഡെലിവർ ചെയ്തത് കളറും ഒക്കെ വ്യത്യാസമുണ്ടയിരുന്നു ഞാനൊരു ബ്ലാക്ക് കളർ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ കസേര വന്നപ്പോൾ അത് ഒരു റെഡ് കളർ ആയിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിലും ഒക്കെ വ്യത്യാസമുണ്ടായിരുന്നു ആ ക പടത്തിൽ കണ്ടപ്പോൾ അതിന് നല്ല ഉറപ്പുള്ള കസേരയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അത് കിട്ടി കഴിഞ്ഞപ്പം ഞാൻ അത് അതിൻ്റെ പാക്കറ്റ് ഒക്കെ അഴിച്ച് നോക്കിയപ്പം അതിന് വലിയ ഒരു ബലമോ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല വളരെ ഒരു അതിനൊരു കനം ഒന്നും ഇല്ലാതായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത് അത് കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ആൾക്കാർ കയറി ഇരുന്നാൽ അത് ഒടിഞ്ഞു പോകുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അത് ഇനി ഇപ്പം തിരിച്ച് നൽകണോ എന്ന് ഞാൻ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ് അത്രക്കും മോശമായ ഒരു അനുഭവമാണ് നേരിട്ടത് കാരണം അത് തീരെ മോശമാണ് അത് അത്ര കട്ടിയോ ഒന്നും ഒരു ബലമോ ഒന്നും അതിന് ഇല്ല തീരെ കൊച്ചു കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളു കുറച്ച് വെയ്റ്റ് ഉള്ള ആൾക്കാർ കയറി ഇരുന്നാൽ അത് ഒടിഞ്ഞു പോകും അതുപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായത്